ഇത് തിരുവല്ലക്ക് പോകുന്ന ബസ്സല്ലേ അയ്യോ നിങ്ങളന്നീ പറയണ്ടായിരുന്നോ ഞാനിപ്പം തിരുവല്ല ബോർഡുണ്ട് ചെങ്ങന്നൂർ ബോർഡൂണ്ടായിരുന്നു ശോ എനിക്കൊരു അത്യാവശ്യ കല്യാണത്തിന് പോണ്ടതാണ് ഞാനിപ്പോൾ എന്തോ ചെയ്യും അപ്പോൾ ഞാനിനി എവിടെ ഇറങ്ങി ഓ നി നിങ്ങളുടെ നിങ്ങളുടെ വണ്ടി ബോഡിൽ ചെങ്ങന്നൂരും തിരുവല്ലയും ബോർഡ് കിടപ്പുണ്ടല്ലോ താഴെ മേളിലുവായിട്ട് ഞാനത് നോക്കിയപ്പോൾ ഞാനത് തിരുവല്ലേന്ന് വിചാരിച്ചല്ലേ കയറിയത് ക്ഷമിക്ക് അതല്ലേ എനിക്ക് പറ്റിപ്പോയി സമ്മതിച്ചു അതല്ല എനിക്ക് ഞാൻ അടുത്ത എന്താ ചെയ്യേണ്ടത് ഞാൻ അതൊക്കെ പോട്ടെ അല്ല ഇനീപ്പത്യാവശ്യം ഒരു ഫങ്ക്ഷന് പങ്കെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിപ്പം എന്താ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പം അടുത്ത ബസ്സ് എവിടുന്നാണ് കിട്ടുന്നത് എളുപ്പം ഞാനിപ്പം അടുത്ത ഏത് ഏത് ഏത് സ്റ്റോപ്പിലെറങ്ങിയാൽ എനിക്കവിടുന്ന് ബസ്സ് കിട്ടാൻ വല്ല മാർഗൂണ്ടോ അങ്ങോട്ടുള്ള ഇതിപ്പം എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പം ബസ്സ് അടുത്ത ബസ്സിന് ടൈമെത്രയായിരിക്കും ആ ഒരു ഒറ്റ ബസ്സേ ഉള്ളോ നിങ്ങളൊരു കണ്ടക്ടറല്ലേ അപ്പോൾ നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ എനിക്കറിയാത്തോണ്ടല്ലേ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് എൻ്റെ സഹോദരാ പറയുന്ന ഒന്ന് കേൾക്ക് എനിക്കങ്ങനല്ല എനിക്ക് അത്യാവശ്യം പോകണം നിങ്ങളെനിക്ക് അടുത്ത ഒരു മാർഗം കണ്ടെത്തി തരിക എന്നുമാത്രൊള്ളു ഞാനടുത്ത സ്റ്റോപ്പിലിറങ്ങാം പക്ഷേ അടുത്ത ബസ്സെപ്പഴാന്നെന്നുള്ള മാത്രം എനിക്ക് അറിഞ്ഞേച്ചാൽ മതി എനിക്ക് വള്ളംകുളത്തായിരുന്നു ചെല്ലേണ്ടത് ശോ എന്തോ ചെയ്യും അടുത്ത മാർ ആ അവിടെ അവിടം വരെയുള്ള വണ്ടിക്കൂലി എത്രായി ചില്ലറയുണ്ടോ എൻറ്റേൽ അഞ്ഞൂറ് അഞ്ഞൂറായിട്ടാണ് ഇരിക്കുന്നത് എൻറ്റേൽ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനാണോ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളിങ്ങനാണോ സംസാരിക്കുന്നത് ഓ ഒരു ഒരു വ പാ ഒരബദ്ധത്തിൽ പറ്റിപോയതാ കാരണവശാൽ നമ്മൾ അത്യാവശ്യമായി ഒരു മനുഷ്യനല്ലേ അപ്പം വഴി വണ്ടി വണ്ടി തെറ്റി കയറാം നമുക്ക് എന്ത് പറ്റും അത് നിങ്ങളിങ്ങനാണോ സംസാരിക്കുന്നത് അയ്യോ ഞാൻ വണ്ടി തിരിക്കാൻ പറയുന്നില്ല ഞാൻ ചോദിച്ച അടുത്ത ബസ്സ് എനിക്ക് എവിടുന്നേലും കെ എവിടുന്നാണ് കിട്ടുന്നത് അപ്പം ഞാനിവിടിപ്പം ഈ ഞാൻ ഈ സ്റ്റോപ്പിലിറങ്ങിയിട്ട് അടുത്ത ബസ്സിന് കയറി പോവാൻ മാത്രമേ നടക്കത്തുള്ളൂ അ ആ എന്നാൽ ശരി ഓക്കെ താങ്ക് യൂ